ആ രാഹുലിൻ്റെ അമ്മയാണ് അതെയോ ആ ആൾ രാഹുൽ പഠിക്കുന്ന സ്കൂൾ പ്രിൻസിപ്പൽ ആണ് ആ അവനേ ഇപ്പോൾ കൊറച്ച്വസം ആയിട്ട് നല്ല പോലെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു കുട്ടി ആണ് ഇപ്പോൾ അവൻ തീരെ ക്ലാസ്സിൽ ശ്രദ്ധ കുറവ് കുറച്ച് ഇത് ആണ് ശ്രദ്ധിക്കുന്നില്ല തീരെ ഏഹ് പഠിത്തത്തിൽ മാർക്ക് കുറച്ച് കുറവാണ് എന്താണ് അങ്ങനെ പറ്റിയത് നല്ല പഠിച്ചു കൊണ്ട് ഇരുന്ന ഒരു കുട്ടി ആണ് കുറച്ച് ഒന്ന് അവനെ ആ ആ ആ

കിടന്നുറങ്ങും പരിപാടി ഇല്ല അല്ലേ ക്ലാസ്സിൽ അങ്ങനെ അതായത് അത് പഠിപ്പിക്കുന്ന സമയത്തും ഇത് ശ്രദ്ധിക്കുന്നത് ആ അതെ ഇപ്പോൾ പഠിപ്പി ക്ലാസ്സിൽ ഇവിടെ പഠിപ്പിച്ചു കൊണ്ട് ഇരിക്കുന്ന സമയത്തും ഇത് ശ്രദ്ധിക്കലില്ല ക്ലാസ്സിൽ കുട്ടികൾ ആയിട്ട് സംസാരിക്കലും കളിയും അത് ഒക്കെ ആണ് ഒന്ന് ശ്രദ്ധിക്കണം ആ ആ ആ ആ ഏഹ് ആ സ്പെഷ്യൽ ക്ലാസ് കൊടുത്ത് ആ നോക്കാം ആ ആ ആ ആ ക്ലാസ് ടീച്ചറോട് ആ ഒന്ന് ആ ആ സ്കൂളിലേക്ക് വന്നിട്ട് ഒന്ന് ഇതാക്കി എടുത്താൽ നന്നായിരുന്നു ആ ആ ആ ഒന്ന് ഒന്ന് ശ്രദ്ധിക്കാം ഉം ആ അതെ കളി പ്രായം കുട്ടികൾ കേൾക്കില്ല ആ പിന്നെ അടങ്ങി ഇരിക്കാമല്ലൊ ഉം ഉം അവർക്ക് അവരെ പ്രായത്തിൽ ഉള്ള കുട്ടികൾ ആൺ കുട്ടികൾ കളിക്കുന്ന കാണുമ്പോഴത്തേക്ക് അവരെ ഒപ്പം ചേർന്ന് കളിയും കളിക്കുന്ന സമയത്ത് കളിച്ചാലും പിന്നെ പഠിക്കുന്ന ഇതിൽ അത്ര ശ്രദ്ധിക്കുന്നില്ല കളി ക്ലാസ് എടുക്കുന്ന സമയത്തും കളിയും ഇത് ആ ആ ആ

ആ ആ പറഞ്ഞേക്കാം പറഞ്ഞേക്കാം ഉം

ആ ആ അത് ആ ആ കൊടുക്കാം അത് ആ സ്പെഷ്യൽ ക്ലാസ് ആ ആ ആ ആ

ആ ആ ഒരു അര മണിക്കൂർ ഇവിടെ ഒരു സ്പെഷ്യൽ ക്ലാസും കൂടെ കൊടുത്താൽ ഫുൾ ആ ടീച്ചറെടുത്ത് പറഞ്ഞിട്ട് കൊടുക്കാൻ പറയാം ഉം ഉം ആ ആ ആ താങ്ക്സ് താങ്ക്സ്